ഗ്രാമപ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ കൈയിൽ ഒതുങ്ങണത് നമുക്ക് സാങ്കേതികവിദ്യ കൂടുതലായിട്ട് കടന്നു വരാത്ത ഏരിയ അതായത് സ്ഥലങ്ങൾ ആയിരിക്കും അതായത് അവിടെ ഉണ്ടാകും പക്ഷേ നമുക്ക് ഈ ടൗൺ ഏരിയകളോ അല്ലെങ്കിൽ സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നോക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികവിദ്യ അത്ര നമ്മുടെ ഗ്രാമപ്രദേശ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽക്ക് കേറിയിട്ടുണ്ടാകില്ല അപ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വിനോദകായിക വിനോദങ്ങൾ ആണ് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ആയാലും ഇപ്പോൾ അവിടെ ഇപ്പോൾ ഏത് ഒരു പ്രായപരിധി ഇല്ലാത്ത രീതിയില് ഇപ്പോൾ എൻറെ അവിടെയൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും രാവിലെ പണിക്ക് ഒക്കെ പോയി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ വന്ന് പണി മാറി അഞ്ച് അഞ്ചര ആകുമ്പോൾ വന്നു എല്ലാവരും അത്യാവശ്യമായി എല്ലാവരും ഗ്രൗണ്ടിൽ വന്ന് എന്തെങ്കിലും അവരെക്കൊണ്ട് ആകുന്ന രീതിയിൽ കളിക്കാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ് അത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്ന അങ്ങനെ കളിച്ചുവളർന്ന ആൾക്കാർ ആയതുകൊണ്ട് അവർക്ക് കളി എന്നുള്ള ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതരീതി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അവർക്ക് അത് പെട്ടെന്ന് ഒഴിവാക്കാനോ അതൊന്നും പറ്റുന്ന ഒരു സംഭവമല്ല അവർ എങ്ങനെയെങ്കിലും ഒരു ദിവസം കുറച്ചുനേരം അവർക്ക് പറ്റാവുന്ന ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചുനേരം വന്നു കളിച്ചിട്ട് പോകുമ്പോൾ അവർക്കൊരു ഉന്മേഷവും ആ പണിയിൽ നിന്ന് അല്ലെങ്കിൽ അന്നത്തെ ആ സ്ട്രെസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒഴിവായി ഒന്ന് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ആയി കിട്ടും